ഹലോ ഒരു ഓട്ടോ ഓട്ടം വിളിക്കാനാണേ ഒരോട്ടത്തിനു വേണ്ടിയാണേ ആ ഞാൻ സോണിയയാണെ ഇക്കരയിൽ നിന്ന് കിഴക്കേക്കരയിൽ നിന്ന് വിളിക്കുകയാണ് മനസ്സിലായോ മറ്റേ ഷൈജു തന്ന നമ്പറാണെ ഷീജയെന്നു പറയുന്ന ഓട്ടോക്കാരിയല്ലേ ആ ആ ആ ഞങ്ങൾക്കേ മണ്ണാർശാല ആ മണ്ണാർശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിലൊന്നു പോകണമായിരുന്നേ അതെങ്ങനെ പോവുന്നതാണ് എളുപ്പം അതെങ്ങനെയാണ് പോകണെ എനിക്കിന്ന് ഉച്ച ആകുമ്പോഴാണ് അവിടെ എത്തേണ്ടത് ആ ഉച്ച ആകുമ്പോൾ നാളെത്തന്നെ പോകാമെന്നോർത്തായിരുന്നു നാളത്തേക്ക് വേണ്ടിയാണ് ഇല്ലെന്നു പറഞ്ഞതെന്ന് ഞാൻ ഒന്ന് ചോദിച്ചിട്ടു വിളിക്കാൻ ആണല്ലേ ഷോർട്ട്കട്ട് വഴിയൊന്നും പറ്റത്തില്ല അല്ലേ പത്തു മണിക്കോ ആ എനിക്ക് പിള്ളാരെ സ്കൂളിലൊക്കെ വിട്ടേച്ചു വേണമായിരുന്നു വരാനേ ഇനി ഞങ്ങൾ ഞാൻ മാത്രമല്ല വേറൊരാളും കൂടെ ആ എൻ്റെ ഒരു ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു ആ അപ്പം പിള്ളാരെയൊന്ന് സ്കൂളിൽ വിട്ടേച്ച് കുറച്ച് നടന്നൊക്കെ വേണം ഞങ്ങൾക്ക് പോകാനേ സ്കൂളിൽ അപ്പോൾ അതൊന്ന് വിട്ടേച്ച് ആ പത്തുമണിയാവുമ്പം ഞങ്ങൾ അക്കരെ വരാം നോക്കാം മാക്സിമം നോക്കാമേ പത്തുമണി അല്ലേ പത്തര വേറെ ഓഹ് ആ വേറെ ഓട്ടൊവൊന്നും വിളിക്കാതിരിക്കാനാണ് ഞാൻ നേരത്തെയങ്ങ് വിളിച്ചതേ പത്തരയല്ലേ പത്തരയാവുമ്പം എത്താം ആ

ആ ആ ജെട്ടിയിൽ ആ ജെട്ടിയിലൊന്ന് പത്തരയാവുമ്പം പിന്നെ പോകുന്ന വഴി വേണമെങ്കിൽ ആ ഫുഡൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ തന്നെ ചെയ്തുകൊളളാം കേട്ടോ ഒന്നും ഓർത്ത് ഇതാവേണ്ട ഞങ്ങൾ തന്നെ ഫുഡ് അറേഞ്ച് ചെയ്തുകൊളളാം ആ ആ അ ആ എന്നാലും എത്ര രൂപയാകും ഏകദേശം ഒരു ചാർജ് ഏഹ് വെയ്റ്റിംഗ് കുറച്ച് വെയിറ്റ് ചെയ്യണം ആ കുറച്ച് സന്ധ്യയാവും കേട്ടോ ഒരു ആ ഇച്ചിരി വൈകിയിട്ടാവുവേ തിരിച്ചെത്തുമ്പം എന്തായാലും ഞങ്ങൾക്ക് അടുത്തൊരു ആൾ ഫ്രണ്ട്സിൻ്റെ വീടുണ്ട് ആ ഒരു കസിൻ്റെ വീടുണ്ട് അപ്പം അവിടേയും കൂടെയൊന്ന് കയറണേ അതുകൊണ്ട് ഇച്ചിരി താമസിക്കും ആ

ആ എന്നാലും എത്ര രൂപയാകുമെന്നൊരു ഏകദേശ ധാരണയൊന്ന് തരാമോ എത്ര രൂപയാവും ഏകദേശം ആ കുഴപ്പമില്ല ആ അത് അത് കുഴപ്പമില്ല ആ ആ ബസ്സിലൊക്കെ കയറി ഇറങ്ങി മറ്റേ പുള്ളിക്കാരിക്ക് കാലും കൊണ്ട് മേലാതിരിക്കുന്നതുകൊണ്ടേ അതുകൊണ്ടാണ് പിന്നെ ഇതാകുമ്പോൾ അമ്പലത്തിലും പോകുന്നതല്ലേ അതുകൊണ്ട് ബസ്സിലൊക്കെ യാത്ര ചെയ്ത് പോകാൻ ആ ആ അതന്നെ ആ ആ വരാം വരാം ആ ആ ആ എൻ്റെ പേര് സോണിയ എന്നാണ് കേട്ടോ ഞാൻ എൻ്റെ പേര് സോണിയ എന്നാണ് എൻ്റെ പേര് കേട്ടോ ആ ആ ശരി ശരി